ഞാൻ വിശ്വസിക്കുന്ന മതമനുഷ്ഠിക്കുന്നവർ എങ്ങനെ ആത്മീയമാർഗ്ഗം നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കുക മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതെ ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ സമൂഹത്തെ റെസ്പെക്ട് ചെയ്യുക നമ്മളുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരോട് നല്ല രീതിയിൽ പെരുമാറുക അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മളാൽ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സ്വന്തമായിട്ട് അധ്വാനിക്കുക കളവ് ചെയ്ത് മുന്നേറാതിരിക്കുക സ്വയം തീരുമാനങ്ങൾ എടുക്കുക ഒരു തീരുമാനത്തിൽ നല്ലൊരു ധാരണ ഉണ്ടാക്കുക അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക അതുപോലെ തന്നെ സ്വാർത്ഥത ഇല്ലാതിരിക്കുക മറ്റുള്ളവർക്കും വേണം മറ്റുള്ളവർക്കും കൊടുക്കണം എന്ന ഒരു ചിന്താഗതിയിൽ ജീവിക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്